മലയാളം മലയാള ഭാഷ അത് വച്ചിട്ടുണ്ടെങ്കില് ഓരോ സംസ്കാരത്തെ പലർക്കും പല സംസ്കാരമുണ്ട് നമ്മുടെ കേരളീയരെ വച്ചുനോക്കുമ്പം മലയാള ഭാഷയും അതിൽനിന്ന് വന്നിരിക്കുന്ന സംസ്കാരമുണ്ടല്ലോ മലയാളികൾക്ക് എവിടെ പോയാലും ജീവിക്കാൻ പറ്റും ഏത് ഭാഷയും അവർക്ക് സ്വായത്തമാക്കാൻ പറ്റും വേറൊരു സ്ഥലത്തുന്ന് വന്നൊരാണെങ്കിൽ അവർക്ക് മലയാളം അത്ര ഫ്ലുവെൻറ്റായിട്ട് സംസാരിക്കാൻ പോലും പറ്റീന്ന് വിചാരിക്കാൻ പറ്റില്ല ഇവിടെ ജീവിക്കുന്നവര് എന്താപറയാ ഏത് രാജ്യത്തില് എവിട കൊണ്ടിട്ടാലും മലയാളികള് ജീവിക്കും അവരങ്ങനെ രക്ഷപ്പെട്ട് പോകുംന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് അതിൻ്റെയൊരു വ്യക്തിത്തമുണ്ട് ഒരു സംസ്കാരമുണ്ട് അതവരെപ്പോഴും കൂടെപിടിക്കുന്ന ആൾക്കാരാ ഒരു സ്ഥലത്ത് പോയി ഞാൻ അവിടെ അങ്ങനെ ആണ് എന്നല്ല നമ്മടെ മലയാളികളുടെ തനിമ അവരുടെ ആ ഒരു നന്മ ഒരു കൂട്ടായിമ എവിടെ ചെന്നാലും ചേർത്ത് പിടിക്കാൻ നോക്കുന്ന ആൾക്കാരാണ് മലയാളികള്